ഹലോ ക്യാബ് ഏജന്സി അല്ലേ ഒരു വണ്ടി വാടകയ്ക്ക് എടുക്കാന് വേണ്ടിട്ട് ആയിരുന്നു ഒരു ടൂറ് പോവാന് മൂകാംബികയിലേത്തെക്കാണ് ടൂര് പ്ലാന് ചെയ്തേക്കുന്നത് ഞാനും എന്റെ കുടംബാംഗങ്ങളും കൂടെയാണ് അപ്പോഴ് വണ്ടി രെ വാടകയും ഡീസലും ഒക്കെ ഒന്ന് അറിഞ്ഞാല് കൊള്ളാമായിരുന്നു അഞ്ചു ദിവസത്തേക്ക് ആയിരുന്നു പ്ലാന് അപ്പോഴ് അതിന്റെ അത് നമ്മൾ വണ്ടിയ്ക്ക് വാടകയാണോ അതോ പെട്രോള് നമ്മൾ അടിക്കണോ അതിന്റെ റേറ്റ് എങ്ങനെയാണെന്ന് അറിഞ്ഞാൽ ഡ്രൈവര് നമുക്ക് വേണ്ട അത് നമ്മൾ തന്നെ സ്വന്തമായിട്ട് തന്നെ ഓട്ടിച്ചോളാം അപ്പം അതിന്റെ വാടകയും റേറ്റും ഒക്കെ അറിയാന് വേണ്ടിട്ടാണ് വിളിച്ചത് നമ്മൾ കുടുംബാംഗങ്ങളുമായിട്ട് ആലോചിച്ചിട്ട് ഒന്നു കൂടെ അങ്ങോട്ട് വിളിക്കാം അത് അറിയാന് വേണ്ടിട്ട് വിളിച്ചതാണ്